ആ ഏട്ടാ അഡ്മിഷൻ ജിമ്മിൽ അതെയതെ പുതിയ ഓ അഞ്ഞൂറല്ലേ ആ ഏട്ടാ ഈ എങ്ങനെ വർക്കിംഗ് ഹവർസ് അത് എത്ര മണിക്ക് ജിം ഓപ്പൺ ആവും

ഓക്കേ ആ ഓക്കേ ആ എല്ലാം വീക്ക് ഫുൾ ആയിട്ടുണ്ടാവുമോ ഹോളിഡേയ്സൊക്കെ ഉണ്ടാവുമോ ഓ അതെയല്ലേ ഓക്കേ ഈ ആ ഈ അഞ്ഞൂറ് അഡ്മിഷൻ ഫീസും ചേർത്തിട്ടാണോ അതോ അതെയല്ലേ എപ്പോൾ പേ ചെയ്യണം മന്ത് എന്റ് പേ ചെയ്താൽ മതിയാവുമോ മന്ത് എന്റ് പേ ചെയ്താൽ മതിയാവുമോ അതെ എങ്ങനെ ഈ അഞ്ഞൂറിന് നമുക്ക് നമുക്ക് ജസ്റ്റ് വന്ന് വർക്ക് ഔട്ട് ചെയ്യാമെന്നുള്ളതാണോ അതോ നമുക്ക് പേർസണൽ ട്രെയിനിംഗ്

ആ അതെയല്ലേ ഇപ്പോൾ ആ ഡയറ്റ് ഒക്കെ നമുക്കിവിടുന്ന് പറഞ്ഞു തരുമോ ഡയറ്റ് അതെയല്ലേ ആ അതെയല്ലേ ഓക്കേ എങ്ങനെ നല്ല തിരക്കുണ്ടാവുമോ പിന്നെ മെഷീൻസ് ഒക്കെ ഫ്രീ ഉണ്ടാവുമോ അതൊന്ന്

അതെയല്ലേ ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ

അതെയല്ലേ ആണോ

അതെയല്ലേ ഓക്കേ

ഓക്കേ ആ ഏട്ടാ നമുക്ക് അങ്ങനെ മസിൽ ബിൽഡ് അപ്പ് നോക്കണ്ടാ ഒന്ന് ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു രീതിക്ക് മാത്രേ നോക്കുന്നുള്ളൂ ആ അതെയല്ലേ ഓക്കേ ആ ആ ആ ഓക്കേ

ഓക്കേ ആ ശരി ആ അതെ അതെ അപ്പോൾ എന്നുതൊട്ട് വരാൻ തുടങ്ങാൻ പറ്റും അതെയല്ലേ ഓക്കേ അപ്പോൾ ചേരുമ്പോൾ കൊടുത്താൽ മതിയല്ലേ പൈസ ഈ മറ്റേ അഡ്മിഷൻ ഫീസ് നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് പിന്നെ തരുന്ന വല്ല പരിപാടിയും ഉണ്ടോ ഒറ്റയടിക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ശരി അപ്പോൾ ഞാൻ നാളെയോ മറ്റന്നാളോ മറ്റോ വരുമ്പോൾ കൊണ്ടുവരാം ശരി എന്നാൽ ഇറങ്ങുന്നു